ആഴ്ച്ചച്ചന്ത എന്ന ഒരു പരിപാടി നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളായ മഞ്ചേരിയിൽ നടക്കാറുണ്ട്

പലചരക്ക് സാധനങ്ങൾ മുതൽ കന്നുകാലികൾ വരെ ചന്തകളിൽ കൊണ്ട് വന്ന് വിൽക്കപ്പെടാറുണ്ട് ആട് കോഴി പച്ചക്കറി മൃഗങ്ങള് ഇവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ചന്തകളായിട്ട് പ്രദേശത്ത് നടത്താറുണ്ട് നേരത്തെ ഇത്തരം ചന്തകളിൽ സാധനങ്ങൾ വാങ്ങാൻ പോവാറുണ്ടായിരുന്നെങ്കിലും ഈ ഇപ്പോൾ അത്തരം ചന്തകളിൽ പൊതുവേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാറില്ല മഞ്ചേരിയിൽ ചില സ്ഥലങ്ങളിൽ ഒക്കെ ഡേയ്ലി മാർക്കറ്റ് ചെയ്യാൻ എന്ന പേരിൽ ഒര് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പൊതുവേ ആഴ്ച്ചച്ചന്തകൾക്കിപ്പോൾ പ്രസക്തിയില്ല എങ്കിലും ഇതിപ്പോഴും നിലനിൽക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ആടുകളുടെയും കന്ന് കളുടെയും ചന്ത ഇപ്പോളും മഞ്ചേരി പ്രദേശത്തിന്റെ എല്ലാ ആഴ്ച്ചകളിലും നടക്കാറുണ്ട് മറ്റ് ഉള്ള ചന്തകള് പൊതുവേ ഡേയ്ലിലി ഡേ ദൈനംദിന മാർക്കറ്റ് എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്